ചെറുപ്പത്തിൽത്തന്നെ ആണ് ഈ പറയുന്ന രീതിയിലേക്ക് നീന്തൽ പഠിച്ചത് നീന്തൽ പഠിച്ചത് ആരിൽ നിന്നുമുള്ളൊരു ട്രെയിനിങ്ങൊന്നും ലഭിച്ചിട്ടൊന്നുമില്ല ജലാശയത്തിൻറ്റെ അല്ലാന്നുണ്ടെങ്കില് ഈ പറയുന്ന മണിമലയാറിൻറ്റെ തീരത്ത് താമസിക്കുന്ന ആളായതു കൊണ്ട് സ്വാഭാവികമായും കുട്ടികളുമായും കൂട്ടുകാരുമായും വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയും അങ്ങനെ കുളിച്ച് വരുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ നീന്തൽ പഠിച്ചത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ട്രെയ്നറുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ഒരു ട്രെയിനിങ്ങൊന്നും തന്നെ ഈ കാര്യത്തില് കിട്ടിയിട്ടില്ല പുതിയ ഒരു നീന്തൽ ശൈലി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കും നടന്നിട്ടില്ല സാധാരണ എല്ലാ ആൾക്കാരും കുളിക്കാൻ ഇറങ്ങുന്ന കൂട്ടത്തില് കുളിക്കുകയും ആ അതുപോലേന്നേ വാശിക്കു നീന്തിപ്പോയി പോയി ആണ് നമ്മള് ഞാൻ ഞാൻ നീന്തൽ പഠിച്ചത് അങ്ങനെ നീന്തി പഠിക്കുന്നത് ഒരൂ വാശിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഡിസ്റ്റെൻസുകൾ കവറേയ്ത് കവറേയ്താണ് നല്ലപോലെ നീന്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പേടിയില്ലാതെ ഭയമില്ലാതെ നീന്താനായിട്ട് പഠിച്ചത് ഇത് ഒരു നല്ല ആരോഗ്യ മായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരീരത്തിന് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യും ഒപ്പം തന്നെ ഒരു ശുദ്ധജലത്തിൽ കുളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നല്ല അനുഭവം ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാന് പഠിച്ചതുപോലെ തന്നെയാണ് എൻ്റെ മക്കളും ഈ പറയുന്ന ഈ നീന്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെത്തന്നെ പഠിച്ചത് നീന്തുമ്പോൾ ഉണ്ടാകുന്ന ഒരൂ സന്തോഷം അല്ലെന്നുണ്ടെങ്കില് ഒരൂ ഒരു ധൈര്യം അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് പരസ്പരം ഒരു സഹായിക്കാനുള്ളൊരു മനഃസ്ഥിതി അതിൽ നിന്ന് കിട്ടുന്നു ഒരാള് കുളിക്കാൻ ഇറങ്ങി പയ്യേ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്നൊരു സാഹചര്യം അല്ല എന്നുണ്ടെങ്കില് നീന്താൻ വയ്യാത്തൊരു സാഹചര്യം വരുമ്പോള് മറ്റുള്ളവര് മറ്റുള്ള കൂട്ടുകാര് നമ്മളെ ഇത് ചെയ്യാൻ പഠിപ്പിക്കുമ്പോള് പ്രേരിപ്പിക്കുമ്പോള് പരസ്പരം ഒരു ആത്മവിശ്വാസവും തൻറ്റേടവും ധൈര്യവും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട് ആ ഒരു ട്രെയിനറിൽ നിന്നും ലഭിക്കുന്നതിൽ നിന്നും കൂടുതലായിട്ടാണ് കുട്ടികൾ കൂട്ടുകാരായി കൂട്ട് ഇറങ്ങി കുളിക്കുമ്പോള് അല്ലെങ്കില് നീന്തൽ പഠിക്കുമ്പോള് നമുക്ക് ലഭിക്കുന്നത് പുതിയ നീന്തലുകളൊന്നും അല്ലാന്നുണ്ടെങ്കില് ഏതെങ്കിലും മെതേഡ് ഒന്നും ഇതിൽ നിന്നും നമ്മളങ്ങനെ സ്വായത്തമാക്കിയിട്ടില്ല അവര് സാധാരണ കുളി അല്ലെങ്കിൽ സാധാരണ നീന്തൽ പോലെ തന്നെ മാത്രമേ ഉള്ളൂ അതിനൊരു പ്രത്യേകിച്ചുള്ള പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനായിട്ട് ഇല്ല കുട്ടികള് അങ്ങനെ പഠിച്ച് വളരുന്നതും ആണ് നല്ലത് എന്നുള്ളതാണ് എന്റെയൊരു അഭിപ്രായം